വയനാട് റസ്റ്റോറൻ്റ് ആണോ ആ ഓക്കേ ഞാനിവിടെ മാനന്തവാടിന്നുള്ളൊരു സ്ഥലത്തുന്ന് വിളിക്കുന്നതാണേ ആ അതെ അതെ അതെ അപ്പോൾ ഇന്നവിടുത്തെ എന്തൊക്കെയാണ് സ്പെഷ്യല് എന്നറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ അവിടെ നി നിങ്ങടെ ഹോട്ടലിലെന്താണ് മെയിനായിട്ടെന്താണ് സ്പെഷ്യല് ചിക്കൻ ബിരിയാണിയാണ് ആ അങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബിരിയാണി പൊളിയാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത് ഉണ്ടൊന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞങ്ങൾക്ക് എനിക്ക് കുറച്ച് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു ആ അൽഫാമൊക്കെയുണ്ടല്ലെ ആ അങ്ങനെയാണെങ്കിൽ അൽഫാം മന്തി ഒരു ഒരിത് ഒരെണ്ണം പിന്നൊരു അഞ്ച് ചിക്കൻ ബിരിയാണി കേട്ടോ ഒരു രാത്രിത്തേക്കാണ് അപ്പോൾ ഒരു ഏഴരയൊക്കെ ആവുമ്പോഴത്തേക്ക് ഒന്നെത്തിച്ച് തരാൻ പറ്റുവോ ആ അതേ അതെ അതെ അങ്ങനെയാണെങ്കിൽ ഞാൻ വാട്സ്ആപ്പ് ചെയ്യാം ആ ചേട്ടൻ്റെ നമ്പർ ഇത് തന്നെയാണോ ഇതിൽ ചെയ്താൽ മതിയോ വാട്സ്ആപ്പ് അഡ്രസ്സ് ആ ഒക്കെ ചേട്ടാ ഓക്കേ താങ്ക് യൂ